മലയാള ഭാഷയും ഔദ്യോഗിക ഭാഷയായ ഹിന്ദിയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ രാഷ്ട്രീയ ഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയും മാതൃഭാഷ എന്ന് പറയുന്നത് മലയാളവുമാകുന്നു കേരളത്തിൽ ഏകദേശം കേരളത്തിലുള്ളവർക്കാണ് മലയാള ഭാഷ കൂടുതൽ അറിയുന്നതും വായിക്കാവുന്നതും അതേപോലെ എഴുതാനും പറ്റുന്ന ഈ കേരളത്തിനുള്ളിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് അഥവാ പുറമേ പോയി എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് അറിയില്ല ഈ ഭാഷ എന്ന് പറഞ്ഞ അറി മലയാള ഭാഷ ചിലപ്പോൾ വായിക്കാനാണെങ്കിലും എഴുതാനാണെങ്കിലും അത് മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനാണെങ്കിലും അവർക്ക് അറിയില്ല പക്ഷെ ഹിന്ദിയെന്ന് പറയണത് നമ്മുടെ രാഷ്ട്രീയഭാഷ ആയത് കൊണ്ട് തന്നെ കേരളത്തിലായാലും ഇന്ത്യയിലായ മൊത്തം വേൾഡിൽ തന്നെ ആയാലും എല്ലാവർക്കും അറിയുന്നൊരു ലാംഗ്വേജെന്ന് പറഞ്ഞാൽ ഹിന്ദി തന്നെയാണ് രണ്ടും തമ്മില് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഹിന്ദി എന്ന് പറഞ്ഞാൽ എല്ലാ മൊത്തത്തിൽ എല്ലാവർക്കും അറിയുന്നതും മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തില് മാത്രം അറിയുന്നതും എല്ലാവർക്കും കേരളത്തിലെല്ലാവർക്കും അറിയുന്നതുമായിട്ടുള്ള ഒരു ഭാഷയാണ് മലയാളം എന്ന് പറയുന്നത് മലയാളം പഠിക്കാനാണെങ്കിലും എഴുതാനാണെങ്കിലും അത് നൽ നല്ല ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അത് പെട്ടെന്നാർക്കും ചെയ്യാൻ പറ്റുന്നതല്ല നമ്മള് കുറെ പരിശ്രമിച്ചാൽ തന്നെ അത് കിട്ടണം മലയാള ഭാഷ നമുക്ക് എഴുതാനാണെങ്കിലും ഹിന്ദി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും വായിക്കാനാണെങ്കിലും മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റെയ്യാൻ ആണെങ്കിലും എല്ലാവർക്കും അറിയുന്നൊരു ഭാഷ തന്നെയാണ് ഹിന്ദിയും മലയാളവുമെന്ന് പറയുന്നത്